പത്രം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നല്ല നമ്മള് എൻ്റെ അഭിപ്രായത്തില് ഏറ്റവും നല്ല പത്രം എന്ന് പറയുന്നത് നമ്മുടെ മലയാള മനോരമയാണ് അതിനകത്താണേൽ എല്ലാം ഒരുപാട് കാര്യങ്ങള് നമുക്ക് വിശ വിശദമായിട്ട് വാർത്തകളെല്ലാം അതിനകത്ത് വരുന്നുണ്ട് പിന്നെ മറ്റേ മാതൃഭൂമി ഉണ്ട് ദീപികയുണ്ട് അങ്ങനെ ഓരോരോ ഇതുണ്ട് എന്നാലും എല്ലാ വാർത്തകളും വിശദമായിട്ട് വരണമെങ്കില് ഈ ന്യൂസ് തന്നെയാണ് പറ്റുകയുള്ളു അതാ പിന്നെ നമ്മുടെ മാതൃഭൂമി പേപ്പർ മാത്രാണെങ്കില് അതും രാഷ്ട്രീയ കാര്യങ്ങൾക്കാണ് പ്രാമുഖ്യം കൊടുത്തു കൊണ്ട് ഇറക്കുന്നതാണ് മലയാള മനോരമ പത്രവാണെങ്കില് അതിനകത്ത് അത്യാവശ്യം രാഷ്ട്രീയ കാര്യങ്ങളുമുണ്ട് നാട്ടുകാര്യങ്ങളുണ്ട് അങ്ങനെയെല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനൊരുപാട് പേജുകളുണ്ട് വാർത്തകളെല്ലാം വിശദമായിട്ടുണ്ട് അങ്ങനെ ഓരോ അങ്ങനത്തെ കാര്യങ്ങളുണ്ട് അത് നമ്മള് കയ്യിൽ എടുക്കുമ്പം തന്നെ അറിയാം നമ്മുടെ എന്നാ മലയാള മനോരമ പേപ്പറിന് എണ്ണം തന്നെ കൂടുതൽ ഉണ്ടല്ലൊ പേപ്പറുകളുടെ എണ്ണം ഉണ്ട് അപ്പം അതനുസരിച്ചുള്ള വാർത്തകളും വരുന്നുണ്ടല്ലൊ മറ്റേ മാതൃഭൂമിക്കാത്തൊക്കെ മൂന്ന് ഷീറ്റ് പേപ്പറ്കളൊക്കെല്ലേയുള്ളു അപ്പം അങ്ങനത്തെ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ട് എൻ്റെ അഭിപ്രായത്തിലതൊക്കെ പറയാനുള്ളു